ഹലോ ആ ഞാൻ രാഹുലിൻ്റെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളാണ് ആ അവൻ ചില കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട് അവൻ എന്തോ ഇത്രയും കാലം നല്ലൊരു ഗുഡ് ബോയ് ആയി നടന്ന് ഇപ്പോൾ എന്തൊക്കെയോ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളോട് ബാഡ് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഇടപഴകുന്നത് അതെ ഇപ്പം ടീച്ചറും ഒരു കംപ്ലൈൻറ്റ് വന്ന് പറഞ്ഞു ടീച്ചർ എന്തോ പഠിക്കാൻ പറഞ്ഞപ്പം അവൻ പഠിക്കത്തില്ല അപ്പോൾ അതിനെന്തോ ടീച്ചർ ചോദിച്ചതിന് ടീച്ചറോടും അവൻ എന്തൊക്കെയോ ചൂടായി പറഞ്ഞ് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നു അതെ അവൻ നല്ല കുട്ടിയായിരുന്നു പക്ഷേ എന്തോ അറിയില്ല അവൻ അങ്ങനെയൊക്കെ ചെയ്ത് പോയി അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കോളേജ് ഇവിടെ വരണം അതെയതെ സ്കൂളിൽ വരണം നിങ്ങൾ വരണം ആ സ്കൂളിൽ വരണം

ആ നിങ്ങൾ നിങ്ങളൊന്ന് വരൂ നിങ്ങൾ ഒന്ന് വരൂ നമുക്കൊന്ന് സംസാരിക്കാം അവനേയും കൂടെ മുന്നിൽ കു വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊന്ന് സംസാരിക്കാം കേട്ടോ

അല്ല നിങ്ങൾ ടെൻഷൻ ആവേണ്ട നമുക്ക് അവനേയും കൂട്ടിയിട്ട് എന്താണ് കാര്യം എന്നൊന്ന് സംസാരിച്ച് നോക്കാം അവൻ എന്താണ് അപ്പം അങ്ങനെ ബിഹേവിയർ അങ്ങനെ പെരുമാറിയതെന്ന് നമുക്കറിയില്ല അല്ലായിരുന്നു പക്ഷേ നമുക്ക് ഏ അതെ നമുക്കൊന്ന് ചോദിക്കാം നിങ്ങൾ ഒന്ന് വരൂ നിങ്ങൾ ഒന്ന് വരൂ നമുക്ക് രാഹുലിനേയും ചേർത്ത് വെച്ചിട്ട് സ്കൂളിൽ ആ നമുക്ക് വരാം നമുക്കവരേം കൂട്ടുകാരേയും വിളിച്ചിട്ട് അവരേയും ചേർത്തുകൊണ്ട് നമുക്കെ എങ്ങും പിന്നെ ചോദിക്കാം സംസാരിക്കാം ഇല്ല അവൻ എന്തൊക്കെയോ ടീച്ചറോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് കാര്യം എന്താണെന്ന് സംസാരിക്കാം കേട്ടോ അവൻ്റെ കൂട്ടുകാരേയും കാണാം നിങ്ങൾക്ക് അവരേയും കൂടെ ചേർത്തിട്ട് നമുക്ക് സംസാരിക്കാം അവൻ എന്താണ് പറയുന്നത് നോക്കാം അതെ നമുക്ക് നോക്കാം നോക്കാം എന്താണ് പറയുന്നത് നോക്കാം അപ്പോൾ അവൻ ഒന്ന് ശരിക്ക് ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങളേയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് ചോദിക്കാം നമുക്ക് എന്താണെന്ന് ഇല്ല ഇപ്പം നോക്കൂ നാ ഏതായാലും നമുക്ക് എന്താണ് കാര്യം എന്ത് ഇങ്ങനെ വിട്ടുപോയാൽ പറ്റില്ലല്ലോ നമുക്ക് നംമുടെ കുട്ടികളുടെ ഭാവി പ്രധാനമല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് വരൂ നമുക്ക് അതൊന്ന് സംസാരിക്കാം അത് പ്രശ്നം എന്താണെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സോൾവ് ചെയ്യാമല്ലോ ആ ഓക്കെ വരൂ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീറ്റൈൽഡ് ആയിട്ട് അവരോട് ചോദിച്ചിട്ടേ അതിന് ആ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്താണ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം നമുക്ക് കേട്ടോ തുടക്കത്തിലേ ആവുമ്പോൾ നമുക്കത് നാ ശരിയാക്കിയെടുക്കാൻ പറ്റും അവനെ ഓക്കെ ഓക്കെ ഓക്കെ